സ്വന്തമായിട്ട് ഒരു ബിസിനസ്സ് തുടങ്ങണമെന്ന് വിചാരിച്ചത് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് സ്വന്തമായിട്ട് ബിസിനസ്സ് തുടങ്ങണം സ്വന്തമായിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സ്വന്തമായിട്ട് ബിസിനസ്സ് തുടങ്ങിയത് ഞാൻ തുടങ്ങിയത് ഒരു ടീ ഷോപ്പ് ആണ് ആദ്യമായിട്ട് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ സപ്പോർട്ട് എല്ലാവരും നിന്നുമൊരു സപ്പോർട്ട് കിട്ടണമായിരുന്നു പിന്നെ ബാങ്ക് ലോൺസ് അങ്ങനത്തെ കാര്യങ്ങളും മെൻ്റൽ സ്റ്റെബിലിറ്റി നമ്മൾ നമ്മൾ അതിൽ സക്സസ് ആവുമോ ഇല്ലയോ എന്ന് പിന്നെ കറക്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് പല പല ലോസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൃത്യമായിട്ട് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നന്നായിട്ട് ഒരു ബിസിനസ്സ് നമുക്ക് വൃത്തിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ചെയ്യുമ്പോൾ അതൊരു സക്സസ്സ് റേറ്റ് കൂടാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് നല്ല വൃത്തിക്ക് ചെയ്യും